ഇപ്പോൾ സൈക്കിൾ ഒക്കെ ഓടിച്ചു തുടങ്ങുന്നവർക്ക് എന്താ പറയുക വരുന്ന ഒരു ബുദ്ധിമുട്ടെന്നു പറഞ്ഞാൽ ബാലൻസിംഗ് തന്നെയാണ് കാരണം സൈക്കിളൊക്കെ ബാലൻസ് ചെയ്തു കിട്ടണമെങ്കിൽ ആദ്യം ഓടിക്കുന്നവരൊക്കെയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ മെല്ലെ മെല്ലെ ആണ് നമുക്ക് സൈക്കിൾ ബാലൻസ് ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അവ എങ്ങനെ ഒഴിവാക്കാം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ബാലൻസ് ചെയ്തു കൊടുത്ത് മെല്ലെ മെല്ലെ ഓടിച്ചോടിച്ച് പഠിച്ചാൽ തന്നെയാണ് ബാലൻസിംഗ് കിട്ടുകയുള്ളൂ പിന്നെ അത് പിന്നെ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ കർശനമായിട്ട് നമ്മൾ പാലിക്കേണ്ട ചില നിയമങ്ങളൊക്കെയുണ്ട് അപ്പോൾ അപ്പോൾ സൈക്കിളൊക്കെ ഓടിക്കുകയാണെങ്കിൽ നമ്മളിടതുവശം കൂടിത്തന്നെ ഓടിക്കണം പിന്നെ എന്താ പറയുക ഓവർ അമിത വേഗം ഒന്നും പാടില്ല പിന്നെ ശ്രദ്ധിക്കണം റോഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളായിക്കോട്ടെ നമ്മൾ വലത്തോട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ തിരിയാനൊക്കെ ആണെങ്കിൽ ഓപ്പോസിറ്റ് വണ്ടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊക്കെ ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നിയമങ്ങളൊക്കെ പാലിച്ചതിന് ശേഷം മാത്രമേ ഇത് ഓടിക്കാവൂ അല്ലെങ്കിൾ നമ്മൾക്ക് ബുദ്ധിമുട്ടാവും മറ്റു വാഹനക്കാർക്ക് യാത്രക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരും അപ്പോൾ എന്താ പറയുക ഈ സൈക്ലിംഗ് ആയിക്കോട്ടെ ബൈക്കിംഗ് ആയിക്കോട്ടെ എന്താണെങ്കിലും നമ്മൾ ഓടിക്കുമ്പോൾ അതിന്റേതായ രീതിയിൽ ഓടിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നേരിടേണ്ടതായിട്ടു വരും അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ നോക്കി ശ്രദ്ധിച്ചു വണ്ടി ഓടിക്കുന്നതാണ് എപ്പോഴും നമ്മൾക്കും നല്ലത് മറ്റുള്ളവർക്കും നല്ലത്